ഒന്ന് ഒന്നാമത്തത് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ടാമത്തത് പതിനാല് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മൂന്നാമത്തത് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴ് നാലാമത്തത് പത്ത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അഞ്ചാമത്തത് മുപ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന്